ഹലോ ഡോക്ടർ ജിതിന്ത്ര റോയ് അല്ലെ ആ എനിക്ക് മോനൊരു അപ്പോയ്മെൻറ്റ് വേണമായിരുന്നു നമ്മൾ ബട്ടൺ പാറയിൽ താമസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രാത്രി നല്ല പനിയുണ്ടായി ഡോക്ടർ എന്നിട്ട് കുറേ ദിവസമായി ഇപ്പൊൾ വിട്ട് വിട്ട് വരുന്നുണ്ട് അപ്പം ഇവിടെ അടുത്ത് കാണിച്ചു ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഡ്യൂട്ടി ഡോക്ടറെയാണ് കാണിച്ചത് അപ്പൊ അവർ മരുന്ന് തന്നു പക്ഷെ ഇപ്പോൾ രാത്രിയാകുമ്പോൾ പനി വരുന്നുണ്ട് ചുമയും അത് നല്ലോണം ചുമയും ഉണ്ട് ഇല്ല ഒട്ടും കുറവില്ല പനി രാത്രിയാണ് വരുന്നത് അപ്പം കഫത്തിൻ്റെ ഇതാണ് തോന്നുന്നത്

കുറേ ദിവസായി അപ്പൊൾ ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചിട്ടാണ് വന്നത് ആവി പിടിക്കണോ ഡോക്ടറെ

ഡോക്ടറെ ഇപ്പോൾ ക്ളീനിക്കിലേക്ക് വരണോ അല്ല വീട്ടിലും നോക്കുന്നുണ്ടോ ഉം അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി വരണോ

അതെ അതെ അപ്പോൾ ഡോക്ടർ ഒന്ന് എന്താണ് ടെസ്റ്റ് ചെയ്യണ്ടത് എന്നൊന്ന് വാട്സപ്പിൽ ഇതാക്കിയാൽ മതിയാവുമോ അഞ്ച് മണി കഴിഞ്ഞിട്ട് അല്ലെ അ ഇത് ഇപ്പോൾ ചുമയ്ക്കിപ്പോൾ വീട്ടിലൊരു മരുന്നുണ്ട് ഡോക്ടറെ അത് കൊടുക്കാൻ പറ്റുമോ ഉം കൊടുക്കുന്നുണ്ടല്ലോ

ആ ആ കഞ്ഞിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അ അ അത് ശരി അപ്പം തണുത്ത ഒന്നും കൊടുക്കേണ്ട അല്ലെ ആ ശരി ശരി അ ആ ശരി ഡോക്ടർ ആ ഓക്കെ ഓക്കെ താങ്ക് യു